ഹലോ ആ ഹലോ ഇത് നിഷട്ടീച്ചറാണോ ഡാന്സ് കഥകളി പഠിപ്പിക്കുന്ന നിഷറ്റീച്ചര് ആ ഞാന് വിളിച്ചതേ എനിക്ക് കഥകളി പഠിക്കാനാഗ്രഹമുണ്ടായിരുന്നേ അന്നേരമപ്പോള് അതിന്റെ കാര്യങ്ങള് ഫീസും കാര്യങ്ങളുമിത് പഠിപ്പിക്കുന്നതൊക്കെ എത്ര നാളാണെന്ന് ഒക്കെ ഒന്നറിയാന് വേണ്ടിയിട്ട് ഞാന് വിളിച്ചതായിരുന്നു അതിന്റെ കോഴ്സ് ഞാനിപ്പോള് കട്ടപ്പനയില്നിന്നാണ് വിളിക്കുന്നത് ആ ഇത് ആ ഉദയഗിരി ആ ആ എനിക്ക് വരാന് പറ്റും ആ അ

ഉം ആ രണ്ട് മണിക്കൂറാണ് എടുക്കുന്നത് ആ ആ

ആ ആ ഒരു സമയത്തെടുക്കുന്നുള്ളൂ ആ ഓക്കെ അ ഉം ഉം ആ അ ആ ആ ആ ആ ആ ആ അപ്പോള് ഇതിന്റെ ഫീസ്സ് കാര്യങ്ങളൊക്കെ ആ ആ അ ആ ആ ആ ആ ഉം ആ അപ്പോള് ആ ഇത് കമ്പ്ലീറ്റാകാന് ആ ആറു മാസംകൊണ്ട് കമ്പ്ലീറ്റാകും അ ഉം ആ ആ ആ

ആ എനിക്ക് ആ ആ ആറു മാസത്തേക്ക് ആ ആറു മാസത്തേയ്ക്കു കുഴപ്പമില്ല മുപ്പതിനായിരമല്ലേ ആ മുപ്പതിനായിരം ഞാന് ശനിയും ഞായറുമേ വരുന്നുള്ളൂ അപ്പോള് ആ ഉം ഉം അ ആ ആ ഹാ ഹാ ഹ ആ അത് ആ ആ ആ ഉണ്ട് ആ ആ ആ ആ അ ആ ഉം കുറച്ചു കൊടുക്കുന്നുണ്ട് ആ പിന്നേന്ന് ആ ആ പറയാം ആ നമുക്ക് ആ ഇന്ന് ഞാനൊന്നു നോക്കട്ടെ ശ്രമിക്കട്ടെ ഞാനൊന്നു വരാമോ എന്നു നോക്കാമേ പിന്നെ നമുക്കീ മത്സരങ്ങള്ക്കൊക്കെ കൊണ്ടുപോകാറൊക്കെ ഉണ്ടോ ഇപ്പോള് സ്കൂളുകളില് കലോല്സവങ്ങള്ക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ടല്ലേ ആ ഉം ആ ഹാ ഹാ ഉം ആ ശരി എന്നാല് ആ ആ അതു കുഴപ്പമില്ല ആ വരാം വരാം വരാം ആ ആ ഞാന് വിളിച്ചിട്ടു വന്നേക്കാം ഉം ആ ശരി ഓക്കെ ആയിക്കോട്ടെ എന്റെ പേര് ടീന ആ ഓക്കെ താങ്ക്യൂ ഓക്കെ